മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരാഘോഷമാണ് ഓണം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും മലയാളികൾ ഓണം ആഘോഷിച്ചിരിക്കും മലയാളികളുടെ വികാരമാണത് ചിങ്ങമാസത്തിലെ അത്തം മുതൽ പത്ത് ദിവസം മലയാളികൾ ഒന്നടങ്കം ഓണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓണപ്പാട്ട് തിരുവാതിര സദ്യ ഓണപ്പൂക്കളം എന്നതൊക്കെ ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പദങ്ങളാണ് കുട്ടിക്കാലത്ത് ഊഞ്ഞാലാടുക അത്തപ്പൂക്കളമിടാൻ തൊടിയിലൂടെ പൂക്കൾ തേടി നടക്കുക എന്നൊക്കെ പറയുന്നത് മധുരമുള്ള ഓർമകളാണ് മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരാഘോഷമാണിത് ഓണവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തതരത്തിലുള്ള ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് പണ്ട് നാട് ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ പ്രജകളെ കാണുന്നതിന് വേണ്ടി വർഷംതോറും എത്തുന്നതാണ് ഓണമെന്നാണ് പ്രധാനപ്പെട്ട ഒര് ഐതിഹ്യം